ഒരു ചിത്രം വരയുടെ പ്രക്രിയ എന്താണെന്ന് വിശദീകരിക്കാമോ എന്ന ചോദ്യമാണ് അപ്പം ചിത്രം വരയ്ക്കണമെങ്കിൽ ആദ്യം പേപ്പർ എടുക്കുക പെൻസിൽ എടുക്കുക റബ്ബറ് പെയിൻറ്റിംഗ് അങ്ങനെ അതിന് വേണ്ട എല്ലാ സാധനങ്ങളു എടുക്കുക അതിന് ശേഷം

പിന്നെ ഈ അടുത്തായിട്ട് ഞങ്ങളൊര് ചിത്രം വരച്ചെന്ന് പറയുന്നത് സരസ്വതീൻ്റെ ചിത്രമാണ് ചിത്രം വളരെയധികം ഫേമസ് ആയിരുന്നു നമുക്കത് പ്രദർശനത്തിന് അത് എൻ്റെ സാരിയിൽ ഒഴുക്കി തന്നു നല്ല രീതിയിൽ ഉള്ള എമൗണ്ട് കിട്ടി പ്രതിഫലം കിട്ടി അതിന് നല്ല രീതിയിലുള്ള പ്രതിഫലം കിട്ടി